ഇന്ത്യയിലെ നൃത്തശൈലികളായ മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം കുച്ചിപ്പുടി കഥക് ഒഡീസ്സി ഇതിൽ ചെറുപ്പം മുതലേ എനിക്ക് ഡാൻസിനോട് ഭയങ്കര താൽപര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട് കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയാണ് എന്നെ ഇതെല്ലാം പടിപ്പിച്ച് തന്നതും ഇപ്പോൾ ഞാനൊരു ഡാൻസ് സ്കൂള് നടത്തുന്നുണ്ട് അതിൽ കുറേ കുട്ടികൾ പഠിക്കാൻ വരുന്നും ഉണ്ട് ഓർമ്മവെച്ച നാളുമുതലേ ശോഭനയുടെ ഡാൻസ് കണ്ടാണ് ഞാൻ വളർന്നത് അവരുടെ ആ ഡാൻസിൻ്റെ ശൈലി അവരുടെ ശരീരവടിവും ആ കണ്ണിൻ്റെ എക്സ്പ്രെഷനൊക്കെ എന്നെ വല്ലാതാകർഷിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ വിനീത് പിന്നെ കാവ്യാമാധവൻ നവ്യ നായർ ലക്ഷ്മി ഗോപാലസ്വാമി ഇവരോടൊക്കെ ഇങ്ങനെ എപ്പവേ ടീ വിയിലായാലും ഇതിലൊക്കെ വരുമ്പോൾ ഞാൻ ശരിക്കും ഇരുന്ന് ഞാനത് ഫുള്ളും കാണാറുള്ള ആളാണ് പിന്നെ സ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ ഡാൻസിലെനിക്ക് ഒരുപാട് സ്റ്റേറ്റ് ലെവലിലായാലും ജില്ലാതലത്തിലായാലൊക്കെ ഇങ്ങനെ അതിന് അവാർഡുകളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോല തന്നെയാണ് കുട്ടികൾ കുച്ചിപ്പുടി പഠിക്കാനും കുറേ കുട്ടികളുണ്ട് ഭരതനാട്യം പഠിക്കാനും കുറേ കുട്ടികളുണ്ട് പിന്നെ കഥക് ഇതൊക്കെ പഠിക്കാൻ കുറേ പിള്ളേർ സ്കൂളിൽ വരുന്നും ഉണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല വരുമാനവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നൃത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോളും അത് പിന്തുടർന്നുപോന്ന് കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപങ്ങളെന്ന് പറയുന്ന മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം ഇതു മൂന്നും ആണ് കേരളത്തിൻ്റെത്